അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പം കൂടുതലായിട്ടും നമ്മള് കേട്ടോണ്ടിരിക്കുന്നത് അതായത് മയക്കു മരുന്നിൻ്റെ ഉപയോഗങ്ങള് അപ്പം ഇത് കൂടുതലായിട്ട് ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പം മുതിർന്നവരാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ചെറിയൊരു എട്ടാം ക്ലാസിൽത്തെ ഏഴാം ക്ലാസിൽത്തെ കുട്ടികള് വരെ അതായത് സ്കൂളിലൊക്കെ കൊണ്ടു പോയിട്ട് അതായത് കൂള് ഹാൻഡ്സ് പാൻപരാഗ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പം അതൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഗവൺമെന്റിൻ്റെ ഒരു അനാസ്ഥ മൂലം തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇപ്പം നമുക്കിപ്പം പറയാം കൂളൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മള കേരളത്തില് നിരോധി നിരോധിച്ച സാധനാണെങ്കിലും അതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആൺകുട്ടികളൊക്കെ വളരെ കുറവാണ് അപ്പം അതിൻ്റെ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അനാസ്ഥ മൂലം തന്നെയാണ് ഉള്ളത് ഇങ്ങോട്ട് പ്രൊഡക്റ്റ് കൊണ്ടു വരുന്നതും അതായത് കുട്ടികൾക്കൊക്കെ പ്രൊ പിന്നെ അതായത് അവർക്കെല്ലം കൊടുക്കുന്നതും അതുകൊണ്ടാണ് മയക്കു മരുന്നും കാര്യങ്ങളൊക്കെ കുട്ടികള് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും അതുകൊണ്ടാ അവരുടെ മൈൻഡ് മാറുന്നു കൂടുതലായിട്ട് പീഡനങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പം ഗവൺമെൻറ് ഇതിലൊക്കെ നല്ലൊരു ശിക്ഷ കാര്യങ്ങള് ഇപ്പം പീഡിപ്പിച്ചവനെ ആണെങ്കിൽ ഒരു മാസം അതോ ഇല്ലെങ്കിൽ ഒര് ഒരാഴ്ച കഴിഞ്ഞാല് അവരെ വീട്ടിലേക്ക് വിടും ആ ഒര് ഇതൊക്കെ പോയിട്ട് അതായത് മറ്റ് രാജ്യങ്ങളെ പോലെ അതായത് അവരെ വധ ശിക്ഷ കാര്യങ്ങളൊക്കെ കൊടുക്കു ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അതുപോല മയക്കു മരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെ പെട്ടന്നൊന്നും വിടാതെ ഒരു പത്തോ പതിനഞ്ചോ വർഷം തടവിനൊക്കെ ഇതാക്കു ആണെങ്കില് മറ്റുള്ളവർക്കും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരുവല്ലൊ എന്ന് ചിന്തിക്കുമ്പം അവരും ഇങ്ങനൊക്കെ ചെയ്യാണ്ടിരിക്കും അപ്പോൾ ഗവൺമെൻറിൻ്റെ അനാസ്ഥ മൂലമാണ് കൂടുതലും കുറ്റകൃത്യങ്ങളിപ്പഴും നടന്നോണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം